എൻ്റെ ഉപജീവനമാർഗ്ഗം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആദ്യം ഞാന് കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഞാൻ ഒരു ആറുമാസം അംഗൻവാടിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളുണ്ട് അപ്പം ഞാന് അവിടെ എൽകെജി യൂകെജി സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ ഇപ്പോൾ പോകുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ പോകാൻ തുടങ്ങീട്ട് ഒരു പിന്നെ രണ്ട് മാസമേ ആയിട്ടുള്ളു എൽകെജി യൂകെജി സ്റ്റുഡൻസിനെ ആണ് പഠിപ്പിക്കുന്നത് എന്നിട്ട് താൽക്കാലികമായിട്ടാണ് അതായത് അല്ലാണ്ട് പിന്നെ എനിക്ക് ഇത് പിന്നെ താൽക്കാലികയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഉപജീവനമാർഗ്ഗം എന്ന് വച്ചാൽ അത് ആണ് പക്ഷെ ഞാൻ വേറെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് പിഎസ്സിയൊക്കെ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇപ്പോൾ ഇപ്പോളൊരു ജോലി ഇതാണ് പിന്നെ അതിലും കൂടെ കുറച്ച് കൂടെ നല്ലൊരു സാലറി ബേ സാലറി ബേസ്ഡ് ജോലി നോക്കുന്നുണ്ട് അപ്പം അത് കിട്ടീട്ടുണ്ടെങ്കിൽ ഞാന് ജോലിയിലേക്ക് മാറുന്നതാണ് പിന്നെ അതിനിടയ്ക്ക് പിഎസ്സിയൊക്കെ പഠിക്കുന്നുണ്ട് പിഎസ്സി എക്സാമൊക്കെ എഴുതുന്നുണ്ട് കിട്ടിയാലതിനു പോകണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പം ഉള്ളൊരു ജോലീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്